ഞാൻ ഇടിയപ്പം ഇടിയപ്പം ഉണ്ടാക്കി അത് അതിൻ്റെ മാവിൻ്റെ പ്രശ്നം എന്ന് തോന്നുന്നു ശരിയായില്ല എന്നിട്ട് പിന്നെ തേങ്ങേയും പഞ്ചസാരയും ഒക്കെ ഇട്ട് മാവ് ഒന്നു കൂടെ പൗഡറ് ഇട്ടങ്ങാണ്ട് ടൈറ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഇല അട ഉണ്ടാക്കി ഇലയിൽ പെരട്ടി ശർക്കരയും തേങ്ങയും ഇട്ട് ആവിക്ക് വേവിച്ച് ഇല അട ആക്കി അച്ചാർ അതേപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാണ്ട് കേടായി ഉപ്പ് കൂടിപ്പോയി അപ്പോൾ പിന്നെ അയിച്ചിങ് അത് ശരിയാക്കാൻ വേണ്ടി അയിക്ക് കുറച്ച് മാങ്ങ നുറുക്കി ഉപ്പ് അല്ലാത്ത എല്ലാം മുളക് അച്ചാർ പൊടി സാമ്പാർ കായം സാമ്പാർ കായം അങ്ങനെയെല്ലാം ഇട്ടങ്ങാണ്ട് പിന്നെ അച്ചാർ ആക്കിയിട്ട് മറ്റേ അച്ചാർ കൂടെ മിക്സിതങ്ങാണ്ട് ശരിയാക്കി പൊ അതേ പോലെ ഒരു ദിവസം പുഡ്ഡിംഗ് ശരിയാവാതെ വന്നിട്ട് ലൂസായി പോയി എന്നിട്ട് പിന്നെ ഫ്രീസറിൽ വച്ചങ്ങാണ്ട് അത് ഐസ്ക്രീം ആക്കി

കാരക്ക പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അച്ചാർ ആക്കിയാണ്ട് ചെറുതാക്കി അരിഞ്ഞ് അച്ചാറാക്കി അയിക്ക് കൂട്ടി കൊടുത്ത് കുറച്ച് ദിവസം വച്ച് ഒന്നങ്ങോട്ട് പഴയതാക്കി എടുത്തപ്പോൾ ഭയങ്കര ടേസ്റ്റായി നല്ല രസമുണ്ടായിരുന്നു